ഹലോ ഇത് സ്വിഗ്ഗി കസ്റ്റമർ കെയർ അല്ലേ ഞാൻ കോഴിക്കോട് നിന്ന് നിഹാരയാണ് സംസാരിക്കുന്നത് എനിക്ക് ഇന്ന് ഉച്ചക്കത്തേക്ക് ഒരു ചിക്കൻ കടായി വേണം അതിന് കുറച്ച് പ്രിപ്പറേഷൻ വെച്ചാൽ അതിൽ കുറച്ച് മധുരം വേണം കുറച്ച് ഒരു അധികം ഉപ്പു വേണ്ട പിന്നെ അതിൽ കുറച്ച് കുരുമുളകുപൊടി അങ്ങനത്തെ കുറച്ച് ഏഡ് ചെയ്യണം അങ്ങനെയുള്ള ഒരു ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കടായി ആണ് എനിക്ക് ആവശ്യമുള്ളത് പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ഉനൈസ് പത്തിരി പിന്നെ ഒരു പിന്നെ ചപ്പാത്തി അങ്ങനെ അതിന് ഒരു സൈ ഡിഷ് സൈഡ് ഡിഷ് ആയിട്ട് ഒരു സലാഡ് വേണം സലാഡിന് സ്വീറ്റ് മധുരം കുറച്ച് ഉണ്ടാകണം പിന്നെ അങ്ങനെയുള്ള ആ ആ തരത്തിലുള്ള ഒരു ഡിഷാണ് എനിക്ക് ആവശ്യം നിങ്ങൾ ഈ ഓർഡർ സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നു എന്നാൽ ശരി രണ്ടുമണി ആകുമ്പോഴത്തേക്കും എത്തണം ഓക്കേ ബൈ